മത്സ്യം പിടിക്കാൻ പോവുമ്പോൾ ഞാൻ കൂടുതലും ഉപയോഗിക്കാറുള്ളത് ചൂണ്ടയാണ് ചൂണ്ടയുടെ നമുക്ക് സിമ്പിളാണ് ഈസി ആയിട്ട് നമുക്ക് മീൻ പിടിക്കാവുന്നതാണ് എന്നാലും വലയും ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുണ്ട് വലയാകുമ്പോൾ കൂടുതൽ മീനുകൾ നമുക്ക് കിട്ടും ഇപ്പം കുറേ തരത്തിലുള്ള ഉപകരണങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങാറുണ്ട് പണ്ടത്തെ പോലെ അധികം സാധനങ്ങളൊന്നും ഉണ്ടാകാറില്ല പണ്ട് ആണെങ്കിൽ കുറച്ചു ഉണ്ടാവുകയുളളൂ നമ്മൾ വടിയിൽ കയറൊക്കെ കെട്ടിയിട്ടാണ് മീൻ പിടിക്കാറുള്ളത് കൈയും കൊണ്ടൊക്കെ ഇപ്പോൾ കുറേ സാധനങ്ങൾ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട് ചൂണ്ട വല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ ഉണ്ട് എനിക്ക് ഇഷ്ടം ചൂണ്ടയാണ് കുറച്ചു സമയം നിന്നാൽ തന്നെ വേഗം മീൻ കിട്ടും കുറേ തരത്തിലുള്ള ചൂണ്ട ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ് അതേപോലെ കുറേ തരത്തിലുള്ള വലയും നമുക്ക് കിട്ടാറുണ്ട് കിട്ടും എന്നാലും ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളത് ചൂണ്ടയാണ് അതാവുമ്പം ഒരു മണ്ണിരയെ കോർത്തു ഇട്ടാൽ മതി അതാവുമ്പോൾ പെട്ടെന്ന് മീൻ വന്നു കൊത്തിക്കോളും അപ്പം നമുക്ക് മീൻ കിട്ടും വല ആണെങ്കിലും നമുക്ക് ഒരു വീശലിന് കുറേ മീനുകളൊക്കെ കിട്ടാറുണ്ട് എന്തായാലും എനിക്ക് ഇഷ്ടം ചൂണ്ടയാണ് അതാവുമ്പോൾ പെട്ടെന്ന് കിട്ടല്ലേം ചെയ്യും നല്ല രസമാണ് ചൂണ്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ ഇരിക്കാൻ വലയും ഞാൻ ഉപയോഗിക്കും പക്ഷെ ചൂണ്ടെയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം